ഹലോ ആ ഇത് അതുലാണേ ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതെ നേരത്തെ വിളിച്ച് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അ അതെ അതെ മട്ടന്നൂരേയ്ക്ക് ഓർഡറ് ചെയ്ത ഫുഡ് തന്നെ അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓർഡർ ചെയ്ത ഫുഡിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് പിന്നെയും വിളിച്ചത് ആ കുറച്ച് സാധനങ്ങൾ ഒഴിവാക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓർഡറ് ചെയ്തത് നേരത്തെ ഓർഡറ് ചെയ്തത് രണ്ട് ബിരിയാണി പിന്നെ രണ്ട് അൽഫാമ് പിന്നെ രണ്ട് ചിക്കൂ ഷേയ്ക്ക് ഒരു ഷാർജ ഷേയ്ക്ക് മൂന്ന് ബെർഗറ് രണ്ട് മൊയ്ത്തോസ് ഇത്രയുമാണ് ഞാൻ ഓർഡറ് ചെയ്തത് അപ്പോൾ അതിൽ നിന്ന് സാധനങ്ങൾ കുറച്ച് ഒഴിവാക്കണം അതിന് വേണ്ടീട്ടാണ് ഇപ്പം ഇപ്പം വിളിക്കുന്നത് ഉം ഓ ഷേയ്ക്കിൽ നിന്ന് രണ്ട് ഷാർജ ഷേയ്ക്കിൽനിന്ന് ഒന്ന് ഒഴിവാക്കണം അതുപോലെതന്നെ മൊയ്ത്തോസിൽ നിന്ന് ഒന്ന് ഒഴിവാക്കുക

പിന്നെ ആ അൽഫാമ് ഒന്ന് മതി അതുപോലെതന്നെ

ആ ബിരിയാണി കുഴപ്പമില്ല ബിരിയാണി രണ്ടെണ്ണം തന്നെ വെച്ചോ ഷേയ്ക്ക് ഒന്ന് ഷേയ്ക്കു നിന്നൊന്നു മൊയ്ത്തൊസിൽന്ന് ഓരോന്ന് ഒഴിവാക്കുക അതുപോലെതന്നെ അൽഫാമും ഒന്ന് മതി ആ അത് അതങ് അത്രേ വേണ്ടു ഇല്ലില്ല വേറൊന്നും കു ആഡ് ചെയ്യാനൊന്നുമില്ല അത് നേരത്തെ ഓർഡർ ചെയ്തപ്പോൾ വേറെ ഒരാളും കൂടി ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഓർഡറെയ്തതാണ് അപ്പോൾ ആ അതെ അതെ ഇല്ലില്ല നേരത്തെ പറഞ്ഞ സ്ഥലം തന്നെ ഓക്കേ ഓക്കേ